എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കഴിവ് എന്ന് പറയുന്നത്

ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചിത്രങ്ങൾ വരയ്ക്കും വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ചിത്രങ്ങൾ ഒക്കെ വരയ്ക്കും ചുമരിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ ഒക്കെ വരയ്ക്കുമായിരുന്നു അങ്ങനെ പിന്നെ പെയിന്റ് ഒക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ഓയിൽ പെയിൻ്റിങ്ങ് വാട്ടർ കളറും ഓയിൽ പെയിന്റും ഒക്കെ ഉപയോഗിക്കും വാട്ടർ കളർ ഒക്കെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ബോക്സ് വാട്ടർ കളർ ഒക്കെ വാങ്ങി ഇങ്ങനെ വരയ്കുമായിരുന്നു സ്കൂളിലൊക്കെ ഇങ്ങനെ വരച്ച് സ്കൂളിൽ ഇങ്ങനെ ഓരോ പരിപാടിക്ക് ഒക്കെ ഇപ്പോൾ ശാസ്ത്രമേള അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകുമല്ലോ അങ്ങനെ അതിലൊക്കെ നമ്മൾ വരയ്ക്കുമായിരുന്നു അങ്ങനെയൊക്കെ വരച്ച് വലുതായിട്ട് ഒന്നും വരയ്ക്കില്ല ചെറുതായിട്ട് ഒക്കെ വരയ്ക്കും പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു ഇങ്ങനെ വരയ്ക്കുന്ന ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യും അങ്ങനെ രണ്ട് ആൾക്കാരുടെയൊക്കെ അവരുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വരച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വരച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ വരച്ചിട്ട് നമ്മൾ പാർസൽ അയച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ആയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ടൈപ്പിലും ചെയുന്നുണ്ട് എനിക്ക് എങ്ങനെ കഴിവ് വികസിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വേറെ എവിടെയും പോയി പഠിക്കുന്നൊന്നുമില്ല ജസ്റ്റ് യൂട്യൂബ് ഒക്കെ നോക്കി ഓരോ ടിപ്പുകൾ ഒക്കെ നോക്കി വരച്ചു പഠിക്കും അത്രയേയുള്ളൂ